ഞാൻ ചെറുപ്പത്തു കളിച്ചിരുന്ന കളീ കളികൾ പറഞ്ഞാൽ പിന്നൊരുപാട് കളികളുണ്ട് കക്ക്കളി സാറ്റ് കളി തൊട്ടു കളി കള്ളനും പോലീസും ചോറും കൂട്ടാനും കൊത്തൻ കല്ല് കോഴിയും കുറുക്കനും കണ്ണു കെട്ടിക്കളി അങ്ങനൊരുപാട് കളികൾ പിന്നെ ഓർമ്മയിലില്ലാത്ത ഒരുപാട് കളികളുണ്ട് അപ്പോൾ കക്ക് കളീനേപ്പറ്റി പറയാണെങ്കിലിപ്പോൾ പിന്നേ നമ്മളൊരു എത്ര എത്ര കുട്ട്യളാ ഉള്ളേച്ചാൽ രണ്ടു കുട്ട്യോളോ അല്ലെങ്കിൽ മൂന്നു കുട്ട്യോളോ നാലോ എത്ര ആൾക്കാരുള്ളേച്ചാൽ അതിനനുസരിച്ചു കളിക്കുക അത് നാലു കള്ളി വരക്കുക നാലു കള്ളി നാലു കള്ളി വരച്ചിട്ട് പിന്നെ എന്തെങ്കിലുവൊരു കക്ക് പറഞ്ഞൊരു സാധനം നമ്മളെന്തെങ്കിലും ഓടിൻ്റെ കഷ്ണമോ അല്ലെ എന്തെങ്കിലും ഒരു കനമുള്ള എന്തെങ്കിലുമൊരു കഷ്ണം നമ്മളെ കയ്യിലൊക്കെ നിൽക്കണ അങ്ങനത്തൊരു കഷ്ണവും കള്ളിയിൽ വെ ഫസ്റ്റു കള്ളിയിൽ വെയ്ക്കുക ഫസ്റ്റ് കള്ളിയിൽ വെച്ചിട്ടു പിന്നേ ഇമ്മൾ ഒറ്റ ഒരു കാലു കൊക്ക ഒറ്റ കാലു കൊണ്ടിങ്ങനെ കൊക്കടി കൊക്കടി ആ ക ആ കക്കൊള്ള കള്ളി ചവിട്ടാതെ ഓരോ കള്ളിയിൽ ചാടിച്ചാടിച്ചാടി അപ്പിറത്തത്തെ അപ്പുറത്തെത്തിയിട്ടു വീണ്ടും അവിടുന്നു തിരിച്ചു ഇങ്ങോട്ടു തന്നെ ഇപ്പുറത്തേക്കു തന്നെ കൊക്ക് ചാടിച്ചാടി വന്നിട്ട് കക്കുള്ള കള്ളി ചാടുക അപ്പുറം ചാടിയിട്ട് ആ കക്ക് പിന്നെ കയ്യിലെടുത്തിട്ടു ചാടുക കള്ളിയിൻ്റപ്പുറം ചാടിയിട്ട് ആടെ നിന്നിട്ടു വീണ്ടും രണ്ടാമത്തെ കള്ളിയിലേക്കു ആ കക്കിട കക്കിട്ടിട്ട് വീണ്ടും അതുപോലെ ഒറ്റ കള്ളിയിൽ ചവിട്ടിയാൽ കക്കിട്ട കള്ളി എടുത്തു ചാടി മൂന്നാമത്തെ കള്ളി നാലാമത്തെ കള്ളിയും ചാടിയിട്ട് അപ്പുറം കടക്കുക വീണ്ടും അതേപോലെ തിരിച്ചു നാലാമത്തെ കള്ളിയിലും മൂന്നാമത്തെ കള്ളിയിലും ചവിട്ടിയിട്ട് കക്കിട്ട രണ്ടാമത്തെ കള്ളി ചാടുക കാലു തൊടാതെ കാല് അതിൽ അതിൽ കാലു കുത്താതെ അപ്പുറം ചാടിയിട്ടു വീണ്ടും പുറത്തേക്ക് അങ്ങനെ പിന്നെ ആ പുറത്ത് നിന്നിട്ട് മൂന്നാമത്തെ കള്ളിയിൽ കക്ക് ഇടുക മൂന്നാമത്തെ കള്ളിയിൽ കക്ക് ഇടുമ്പം കക്ക് പുറത്തേക്കു പോകരുത് നാലാമത്തെ കള്ളിയിലേക്കു ചാടിയാൽ ആ കളി അപ്പം കളിക്കണ ആൾ ആ കളിയിൽ തോറ്റു ഒഴിവാകണം അപ്പോൾ വീണ്ടും നാലാമത്തെ കള്ളിയിലേക്ക് ഇടുക നാലാമത്തെ കള്ളിയിലേക്കിട്ടിട്ട് പിന്നതേപോലെ വീണ്ടും അതേപോലെ അങ്ങട് തിരിച്ചു കക്കെടുത്തിട്ട് ഇപ്പുറത്തേക്ക് ചാടുക പിന്നെ അതു കഴിഞ്ഞിട്ട് വീണ്ടും ആ കക്കെടുത്തിട്ട് പിന്നെ കയ്യിലു വെക്കുക കയ്യിൻ്റെ ഉള്ളിൽ വെക്കുക ഉള്ളിൽ വെച്ചിട്ട് കയ്യിങ്ങനെ മലർത്തി പിടിച്ചിട്ടു വീണ്ടും അതേപോലെ അപ്പം എല്ലാ കള്ളിയിലും ചവിട്ടാം അപ്പം എല്ലാ കള്ളിയിലും ചവിട്ടി ചവിട്ടി നാല് കള്ളിയിലും ചവിട്ടിയിട്ട് അപ്പുറം കടക്കുക അപ്പുറം കടന്നിട്ട് അതേപോലെ നാലാമത്തെ കള്ളിയിലും മൂന്നാമത്തെ കള്ളിയിലും രണ്ടാമത്തെ കള്ളിയിലും ചവിട്ടിയിട്ടു വീണ്ടും ഒന്നാമത്തെ കള്ളിയിലേക്കു വരിക ഒന്നാമത്തെ കള്ളിയിലേക്കു വന്ന് പിന്നെ പുറത്തേക്കു വരിക പുറത്തേക്കു വന്നു ചാടിയിട്ടു നിന്നിട്ടാണ് കക്ക് പിന്നെ നേരെ കയ്യിൻ്റെ പുറത്തേക്കു വെക്കുക പുറത്തേക്കു കൈ നമ്മൾ പുറത്തേക്കു വെച്ചിട്ട് വീണ്ടും വീണ്ടും അതേപോലെ ഒന്നാം കള്ളി രണ്ടാം കള്ളി മൂന്നാം കള്ളി നാലാം കള്ളി ചാടിയിട്ട് അതേപോലെ വീണ്ടും അതേപോലെ നാലും മൂന്നും രണ്ടും കള്ളികൾ ചാടി വന്നു കഴിഞ്ഞിപ്പുറത്തേക്കു തിരിച്ചെത്തിയിട്ട് നമ്മളുടെ കയ്യിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് പിന്നെ കയ്യിൻറ്റിതിങ്ങനെ ചുരുട്ടി പിടിക്കുക ഉള്ളം കയ്യിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അതിൻ്റെ മോൾള് വെക്കുക അതിൻ്റെ മോൾള് വെച്ചിട്ട് അതേ മാതിരി ഒറ്റക്കാലുകൊണ്ട് ഒ ഒന്നാം കള്ളി രണ്ടാം കള്ളി മൂന്നാം കള്ളി നാലാം കള്ളി അങ്ങനെ ചാടുക അതു കഴിഞ്ഞിട്ട് നാലാമത്തെ കള്ളിയെന്നു വീണ്ടും ഇങ്ങോട്ടു തന്നെ നാല് മൂന്ന് രണ്ട് ഒന്ന് എറിഞ്ഞ് ഇങ്ങോട്ടു തന്നെ ചാടിയിട്ട് അതേപോലെ പുറത്തു വന്നു നിൽക്കുക പുറത്തു വന്നു നിന്നിട്ട് വീണ്ടും ആ കക്കെടുത്തിട്ട് നമ്മളുടെ തലയിൽ വെക്കുക ആ തലയിൽ വെച്ചിട്ട് വീണ്ടും ഒന്നാം കള്ളി രണ്ടാം കള്ളി മൂന്നാം കള്ളീ നാലാം കള്ളി അപ്പുറം ചാടിയിട്ടു വീണ്ടും അതേപോലെ തിരിച്ചു നാല് മൂന്ന് രണ്ട് ഒന്ന് അതേപോലെ പുറത്തേക്കു നിൽക്കുക പുറത്തു നിൽക്കുക അതേപോലങ്ങനെ ആയിട്ട് അപ്പോൾ അതു ഫുള്ളും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ ജയിച്ചു അങ്ങനെയാണ് ആ കളി പിന്നെ അടുത്തത് സാറ്റ് കളി പറഞ്ഞാൽ പിന്നെ കൊ എത്ര കുട്ടികൾ അതിനെത്ര കുട്ടികൾ ആവോ എത്ര അഞ്ചോ ആറോ എത്ര എത്ര കുട്ടികളാ ഉള്ളതെച്ച അത്രയും കുട്ടികൾ നിൽക്കുക അതിലെ ഏതെങ്കിലും ഒരാൾ പിന്നെ എണ്ണാനാകുക അതായത് ഒന്ന് രണ്ട് നൂറു വരെ എണ്ണ ഒരു എന്താ മരത്തുമ്മേലോ അല്ലെ വീടിൻ്റെ ചുമരിൻ്റവിടേ എവിടെയെങ്കിലൊക്കെ കണ്ണു പൊത്തി നിന്നിട്ട് എണ്ണുക ഒന്ന് രണ്ട് മൂന്ന് നാല് പറഞ്ഞിട്ട് നൂറു വരെ എണ്ണുക നൂറു വരെ എണ്ണനേനിടയിൽ ഈ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഒളിക്കുക ഒളിച്ചു നിന്നിട്ടു പിന്നെ നൂറു വരെ എണീറ്റ് സാറ്റടിക്കുക സാറ്റടിക്കുമ്പോൾ പിന്നെ ഈ എണ്ണിയ ആൾ ഓരോരുത്തരെയും തിരഞ്ഞു നടക്കണ സമയം കൊണ്ട് ഈ തിരഞ്ഞു നടക്കണാളെ കാണാതെ ആ ആൾക്കു ബാക്കി വന്നു സാറ്റടിക്കുക അങ്ങനെയായാൽ ഓല് എണ്ണാനാകില്ല അതല്ല പിന്നെ സാറ്റടിക്കാൻ കൈയാതെ ഇബല് തിരഞ്ഞിട്ട് നമ്മളീ എണ്ണിയ ആൾ ഇബലെയൊക്കെ തിരഞ്ഞു നടന്നിട്ട് ആരെയെങ്കിലും ഒരാളെ കണ്ടു ആ കണ്ടറിഞ്ഞാൽ ആ ആളുടെ പേർ വിളിച്ചിട്ടു ഫസ്റ്റു വന്നു സാറ്റടിക്കുക അതായതു കണ്ട ആൾ പിന്നെ ഒളിച്ചു നിന്ന ആൾ എത്തണതിൻ്റെ മുൻപെ എണ്ണിയാൽ കാണണം എത്തണം സാറ്റടിക്കണ സ്ഥലത്ത് എന്നിട്ട് സാറ്റടിക്കണ സ്ഥലത്തെത്തിയാൽ ഫസ്റ്റ് ഓല് സാറ്റടിച്ചാൽ ആ സാറ്റടി ആ കണ്ടാൾ വീണ്ടും എണ്ണ അതല്ല ആ ആൾക്കും കിട്ടിയില്ല അടുത്താളെയും തിരഞ്ഞിട്ട് ഓലൊക്കെ മുന്നിൽ വന്നു സാറ്റടിച്ചാൽ ഈ എണ്ണിയ ആൾ തന്നെ പിന്നെയും എണ്ണണം അതല്ല മറ്റുള്ളോരൊക്കെ സാറ്റടിച്ചിട്ട് ഒരാൾക്കു മാത്രം അയാൾ ആ ആളെ കണ്ടിട്ട് ആ കുട്ടീനെക്കണ്ടിട്ട് സാറ്റടിക്കാൻ കഴിഞ്ഞില്ലാച്ചെങ്കിൽ ആ കുട്ടി വീണ്ടും എണ്ണാനാകും അങ്ങനെ ആ കളി തുടർന്നു തുടർന്നു പോകും അതാണ് സാറ്റ് കളി പിന്നെ തൊട്ടു കളി പറഞ്ഞാൽ അതും ഇതേപോലെ തന്നെ എന്താ എത്ര കുട്ടികൾ ച്ചാൽ അത്ര കുട്ടികളാകാം അതുപോലെ പിന്നെ എന്താ ഒരാള് തൊടാനാകുക ഞ ഒരാൾ ഒരു മറ്റുള്ളോരൊക്കെ പാടെ കൂടി നിൽക്കുമ്പോൾ ഓട ഓടുക ഒക്കെ ചെയ്യുക അതേപോലെന്നിട്ട് ആ ആളെ തൊടുക ഒരാളെ തൊടുക തൊടാൻ കിട്ടിയാൽ ആ തൊട്ടയാൾ ഒഴിഞ്ഞു അങ്ങനെ അതിൽ പിന്നെ ആദ്യം തൊട്ടാളാരാച്ചെങ്കിൽ പിന്നെ ഓല് വീണ്ടും ഇതേപോലെ തൊടാനാകുക അതാണ് തൊട്ടു കളീ പറഞ്ഞാൽ പിന്നെ കള്ളനും പോലീസും പറഞ്ഞാൽ പിന്നെ ഒരു കള്ളൻ എന്താ ഒരു പേ ഒരു ബുക്കെടുക്കുക അതിൽ എല്ല എല്ലാരുടെ പേരുമെഴുതുക എല്ലാ എത്ര ആളാ കളിക്കുന്നേച്ചെങ്കിൽ ആ കള്ളനും ഒരു കള്ളൻ ഒരു പോലീസ് ഒരു ജഡ്ജി ഒരു അന്ന്യായക്കാരൻ പിന്നെ അങ്ങനെ നാലാൾ നാലാണ് നാലാൾ നാലു പേപ്പറാണ് അതിൽ ഉണ്ടാക്കുക അതു മടക്കിയിട്ട് അതിലെഴുതിയിട്ട് മടക്കി അതു കാണാത്ത രീതിക്ക് നാലു മടക്കാക്കിയിട്ട് കൈ പിടിക്കുക പിന്നൊരു പേപ്പറിൽ നമ്മൾ എത്ര ആൾക്കാരാണ് അതിൽ കൂടിയേച്ചെങ്കിൽ ഓലെ പേരൊക്കെ എഴുതി വെയ്ക്കുക എന്നിട്ടോലെ പേരൊക്കെ എഴുതി വെച്ചിട്ടു പിന്നെ ആരെങ്കിലും ഒരാളീ നാലു പേപ്പർ ഈ മടക്കിയ നാല് പേപ്പറും കൈപ്പിടിച്ചിട്ട് കൈയ്യിലിട്ട് കുലുക്കിയിട്ട് അതു മേലെക്കൊരു ഒറ്റ ഇടൽ നിലത്തേക്ക് ഇടുക ഐന്ന് അവനവനിഷ്ടപ്പെട്ട ഏതാച്ചെങ്കിൽ തിരഞ്ഞെടുക്കുക അപ്പം തിരഞ്ഞെടുക്കുമ്പോൾ ചെ ചിലർക്കു പോലീസാകും കിട്ടീണ്ടാക ചിലർക്ക് കള്ളനാകും ചിലർക്ക് അന്യായക്കാരനാകും അങ്ങനെ ഓരോരുത്തരായി ഓരോരുത്തരായിട്ടാകും കിട്ടിയിട്ടുണ്ടാകുക അതിൽ അന്യായക്കാരനെന്നു പറഞ്ഞ ആൾ കിട്ട ആ പേപ്പർ കിട്ടിയ ആൾ പറയുക ചോദിക്കാരെടാ പോലീസെന്നു ചോദിക്കും അപ്പം പോലീസാരാച്ചെങ്കിൽ ആ പോലീസ് പറയും ഞാനാണെടാ പോലീസെന്നു പറയും എന്ന കള്ളനെ പിടിക്കാൻ കഴിയുമോ ചോദിക്കും കള്ളനെ കണ്ടു പിടിക്കാൻ കഴിയുമോ ചോദിക്കുമ്പം ആന്ന് പറയുക ആന്ന് പറഞ്ഞിട്ട് അയാൾ ആ കളിക്കണ കുട്ടി കള്ളൻ ആരായിലെച്ചെങ്കിൽ കള്ളൻ മുണ്ടാതെ നിൽക്കും കള്ളൻ ആരാണെന്നു വെച്ചെങ്കിൽ പറയണേച്ചെങ്കിൽ പ പറഞ്ഞയാൾ ശരിയാണെങ്കിൽ പിന്നെ അയാ ആ പറഞ്ഞ കുട്ടിക്കിരുന്നൂറ് മാർക്കു കിട്ടും അല്ലാത്തോർക്ക് ഇപ്പോൾ പോലീസിനഞ്ഞൂറ് കള്ളന് പൂജ്യം പിന്നെ ജഡ്ജിക്ക് എണ്ണൂറ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് മാർക്കുകൾ അതിൽ അപ്പോൾ ആ കള്ളൻ പറഞ്ഞ ശരിയല്ലാച്ചെങ്കിൽ കള്ളനിരുന്നൂറ് മാർക്കും കിട്ടും ഈ തെറ്റായി പറഞ്ഞ കുട്ടിക്ക് നൂറും മൂന്നു പൂജ്യവും കൂടികിട്ടും അങ്ങനെയാണാ കളി അങ്ങനെ കളിച്ചു കളിച്ചു കളിച്ചു കുറേ നേരം എത്ര സമയം മക്ക് കളിക്കാൻ താത്പര്യമെന്നു വെച്ചാൽ അത്ര സമയം കളിച്ചു കഴിഞ്ഞിട്ട് ഇനി മതി ഇനി മക്ക് മതിയാക്കുകയെന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ മാർക്കൊക്കെപ്പാട് ഓരോരുത്തർക്കും കിട്ടിയ മാർക്കുകൾ കൂട്ടിക്കൂട്ടി കൂട്ടി നോക്കും ഇന്ന ആളെ പേരെഴുതിയിട്ടുണ്ടാകുമല്ലൊ പേപ്പറിൽ അപ്പം മാർക്കൊക്കെ കൂട്ടി നോക്കിയിട്ട് അതിലാർക്കാണോ കൂടുതൽ മാർക്ക് ആ മാർക്ക് കിട്ടിയ ആൾ ജയിച്ചു അങ്ങനെയാണ് കള്ളനും പോലീസും കളി പിന്നേ കുട്ടി കുട്ടിക്കാലത്തൊക്കെ ചോറും കൂട്ടാനും അങ്ങനെ പറഞ്ഞിട്ട് കളിക്കും എല്ലാവരും അ പെൺ കുട്ടികളാണ് കൂടുതൽ കളിക്കുക ഓൽക്കാണ് ആ കളീനോടൊക്കെ താത്പര്യം അപ്പോൾ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ചോറും കൂട്ടാനും കളിക്കല്ലേ പറഞ്ഞാൽ അപ്പെല്ലാവരും റെഡി അപ്പെല്ലാവരുമ്മള് വീട്ടിലത്തെ പോലെ ഇമ്മളെ വീട്ടിൽ ഇമ്മളെ അമ്മയൊക്കെ ചെയ്യുന്നതു പോലെ തന്നെ അതൊക്കെ കണ്ടിട്ട് അതൊക്കെയാണാ ചോറും കൂട്ടാനും കളിയ്ക്കുക പറയണ കളി അതിൽ പാത്രങ്ങളൊന്നുമുണ്ടാകില്ലല്ലോ അപ്പെന്തു കാട്ടും ചിരട്ടകളൊക്കെയെടുക്കും ചിരട്ട കുപ്പി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കിയ സാധനങ്ങളും അതൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടിയിട്ട് ഏതെങ്കിലുമൊരു മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിലൊരു വീടിൻ്റെ അരുക്കോ അവിടെവിടേലുമെല്ലാവരും കൂടിയിട്ട് ചോറും കൂട്ടാനും കളിയ്ക്കാനാദ്യം മൂന്നു ചെറിയ കല്ലു കൊണ്ടു വന്നു വെക്കും പിന്നെ മൂന്നെണ്ണം കൂടി അങ്ങനാറ് കല്ലു വെച്ചിട്ട് രണ്ടടുപ്പാക്കിയിട്ട് ഉണ്ടാക്കും പിന്നെ ചെറിയ ചെറിയ ചുള്ളെലുകളൊക്കെ പെറുക്കി കൊണ്ടു വന്നു പോ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് അതു വെക്കും എന്നിട്ട് മഴക്കാലമൊക്കെ ആകുമ്പോളോ അല്ലെങ്കിൽ വെള്ളമൊക്കെയുള്ള വെള്ളമൊക്കെ കെട്ടി നിൽക്കണ സ്ഥലങ്ങൾക്കുണ്ടാകും നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ കെട്ടി നിൽക്കണ ഇടത്തു വന്നിട്ടു പിന്നെ കുപ്പിയിൽ കുടം കുടം പോലെ കുപ്പി കുടമാണ് പറഞ്ഞതു കൊണ്ട് കുപ്പി ആണെടുക്കുക എന്നിട്ടാ കുപ്പിയിൽ വെള്ളം കൊണ്ടു പോകും വെള്ളം പോയി കൊണ്ടു വരും ആ ചെളീന്ന് കുപ്പിയൊക്കെ വൃത്തിക്ക് കുടം കഴുകുന്ന പോലെയൊക്കെ കഴുകിയിട്ട് കുപ്പിയിൽ വെള്ളം നിറച്ച് അതും കൊണ്ട് കളിയ്ക്കണ സ്ഥലത്തേക്ക് വന്നിട്ട് പിന്നെയീ ചിരട്ട അടുപ്പത്തു വെച്ചിട്ട് വെള്ളം പാരും വെള്ളം പാർന്നിട്ട് അരി കഴുകണ പോലെ മണ്ണൊക്കെ ലേശം കുറച്ചു മണലും മണ്ണൊക്കെ എടുത്തിട്ട് മണൽ മണ്ണല്ല മണ്ണു പോകുമല്ലോ മണലെടുത്തിട്ട് അതൊക്കെച്ഇരണ്ട് മൂന്ന് പ്രാവശ്യം അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ അരി കഴുകണ പോലെ ചിരട്ടയിലിട്ടിട്ട് അതൊക്കെ കഴുകി ഊറ്റി ചോറടുപ്പത്തു വെയ്ക്കും ചോറടുപ്പത്തു വെച്ചിട്ട് കുറച്ചു നേരം തീ കത്തിക്കുന്ന പോലെയൊക്കെ ചെയ്തിട്ട് ഞാൻ ചോറൊക്കെ വെന്തോയെന്നു നോക്കിയിട്ട് ആ വള്ളമൊക്കെ അതീന്നങ്ങടൂറ്റി കളഞ്ഞിട്ടാണ് മണൽ മാത്രം ചിരട്ടയിലാക്കിയിട്ട് അങ്ങനെ നിൽക്കും അങ്ങനെ നീക്കിയിട്ട് നിന്നിട്ട് അതു കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടാനാണെന്നു പറഞ്ഞിട്ടെന്തെങ്കിലും പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും കായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലകളോ അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് അരിഞ്ഞൊരു ചിരട്ടയിലാക്കു അതൊരു ചിരട്ടയിലാക്കിയിട്ട് ചോ കറിയാണ് അല്ലെങ്കിൽ പപ്പടം കാച്ചുകയെന്നു പറഞ്ഞിട്ട് ആദ്യം കുറച്ചു വെള്ളം പാരും എന്നിട്ട് ആ വെള്ളം വാർന്നു കഴിഞ്ഞിട്ടു പപ്പടം ആണെന്നു പറഞ്ഞിട്ട് രണ്ടേലൊക്കെ ചെറിയ ഇല എന്തെങ്കിലുമെടുക്കും ആ ഇല എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ എന്താ വെളിച്ചെണ്ണ പോലെ വെള്ളം ചിരട്ടേക്കൊഴിച്ചിട്ട് ഒരു കോലൊക്കെടുത്തിട്ട് ആ ഇല പപ്പടം കാച്ചണ പോലെ ആ വെള്ളത്തിലേക്കു കോരി ഇട്ടിട്ട് ആ വെള്ളത്തിലേക്കന്നിടുക ആ ഇല എന്നിട്ടെന്താ ആ പപ്പടം നമ്മൾ വറുത്തു കോരണ പോലെ പിന്നെ ഇല കോരിയിട്ട് ആ പപ്പടം ആക്കിയിട്ട് അതും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ എല്ലാവരും ഇപ്പം ചോറും കൂട്ടാനൊക്കെ ആയിയെന്നു പറഞ്ഞിട്ട് ബാക്കി ഉള്ളോരെയൊക്കെ ചോറുണ്ണാൻ വിളിക്കും എന്നിട്ട് എല്ലാവരെയും ഒരു സ്ഥലത്തിരുത്തിയിട്ട് വരിക്കിങ്ങനിരുത്തും എന്നിട്ടെന്തെങ്കിലും എന്തെങ്കിലും പൊഡണേൻ്റിലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇലകളുണ്ടാകുമല്ലൊ അപ്പുറം ഇപ്പുറമൊക്കെ അല്ലെ വല്ല തേക്കിൻ്റിലയോ അങ്ങനത്തെ എന്തെങ്കിലും വലിയ കുറച്ചിലൊക്കെ പറിച്ചിട്ട് എല്ലാവരെയും പിന്നെ ഇങ്ങനെ ഇരുത്തി വട്ടത്തിലിരുത്തിയിട്ട് എല്ലാവർക്കും ഒരില വെച്ചു കൊടുക്കും ഇല വെച്ചു കൊടുത്തിട്ട് ഈ മണ്ണു ചോറാദ്യം വിളമ്പും പിന്നെ ഉപ്പേരികളൊക്കെ പല വിധം ഇലകളും ഒക്കെ അരിഞ്ഞിട്ടും എന്തെങ്കിലും ചെമ്പരത്തീൻ്റെ പൂവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോ പൊറ അരിഞ്ഞിട്ടും ഇലകളും അതു ഇതൊക്കെ അരിഞ്ഞു പേരുകൾ അച്ചാറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല വിധം ചിരട്ടകളിൽ പല വിധം കറികളുണ്ടാക്കിയിട്ടുണ്ടാകും അതൊക്കെ ആദ്യം തൊട്ട് ഇലയിലെ അരിക്കക്കൂടൊക്കെ വിളമ്പിയിട്ടു പിന്നെ ചോറും വിളമ്പിയിട്ട് പിന്നെ കറിയുണ്ടാക്കിയിട്ടുണ്ടാകും വെള്ളം ഒഴിച്ചിട്ടെന്തെങ്കിലും കോവക്ക അരിഞ്ഞിട്ടിട്ടൊരു കറിയുണ്ടാക്കിയിടുണ്ടാകും അല്ലെ എന്തിൻ്റെങ്കിലും തണ്ടോ അങ്ങനെന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടിട്ടൊരു കറിയുണ്ടാക്കിയിട്ടുണ്ടാകും ആ കറി അതൊക്കെ ഇളക്കി അയ്ക്കി ഒഴിച്ചു കൊടുക്കും അതൊക്കെ ഒഴിച്ചെല്ലാവരും തിന്നണ പോലെ ഒക്കെ ചെയ്തു പിന്നെ കയ്യൊക്കെ കഴുകി വൃത്തിയാക്കി ചോറുണ്ടിട്ട് ഇമ്മളില കൊണ്ടിടണ പോലെ ഇലയൊക്കെടുത്ത് അതൊക്കെ കൊണ്ടു പോയി ഇട്ടിട്ട് പിന്നെ നമ്മളപ്പുറത്തു പോയിട്ട് കൈകഴുകി വീണ്ടും പോയിട്ട് വെള്ളമൊക്കെ കൊണ്ടു വന്നു കുപ്പിയിൽ വെള്ളം കൊണ്ടു വന്ന് ആ ചിരട്ടകളൊക്കെ പാത്രം കഴുകണ പോലെ ആ ചിരട്ടകളൊക്കെ കഴുകി അതൊക്കെ കമഴ്ത്തി വെച്ച് ഒക്കെ വൃത്തിയാക്കി അടുക്കളയൊക്കെ വൃത്തിയാക്കി അങ്ങനെ അങ്ങനെയാണ് ആ ചോറും കൂട്ടാനും കളി പിന്നെ അടുത്ത കളിയെന്നു പറഞ്ഞാൽ കൊത്തങ്കല്ല് കൊത്തങ്കല്ല് പറഞ്ഞാൽ പിന്നത് പിന്നെ രണ്ടാളാണ് കളിക്കുക കൊത്തങ്കല്ല് പറഞ്ഞാൽ അതു പിന്നെ അഞ്ചു കല്ലൊരാൾക്കും അഞ്ചു കല്ലൊരാൾക്കും അങ്ങനെ പത്തു പത്തു കല്ല് അപ്പോൾ ആ കല്ലിങ്ങനെ പിന്നെ പത്തു കല്ലുമ്പാടെ നിലത്തേക്കെന്നിടും നിലത്തേക്കിങ്ങനിട്ടിട്ട് അതീന്നൊരു കല്ലു മാത്രം ആരാ ഫസ്റ്റ് കളിക്കുന്നത് ച്ചാ ആ കല്ല് കൊത്തങ്കല്ലോണ്ട് കൊത്തി കൊത്തിങ്ങനെ കൊത്തങ്കല്ലതാണ് കൊത്തി കൊത്തിങ്ങനെ കല്ലിങ്ങനെ നിലത്തേക്കു ചാടാത്ത രീതിക്ക് നമ്മളിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ എടുക്കണം അതിൽ ആർക്കാണ് തോനെ കിട്ടിയത് കല്ല്ച്ചെങ്കിൽ ആ ആൾ ജയിച്ചു അങ്ങനെയാണ് കൊത്തങ്കല്ല് അതു പത്തും ചിലപ്പം അധികം അതിലേറെ കിട്ടിയ കല്ലോക്കെ നേത്തിക്കിപ്പം രണ്ട് കളിക്കുമ്പം രണ്ടു കല്ലാണ് കിട്ടിയേന്നുവെച്ചാൽ അടുത്ത കളി കളിക്കുമ്പെൻ്റെ കൈ കല്ലു കൈയിൽ നിന്നു നിലത്തേക്കു ചാടീണ്ടെൻ്റെ കളി പോയി പിന്നടുത്താളാണ് കളിക്കുക അങ്ങനെ കുറേ കല്ലുണ്ടാകും ഒരുപാട് കല്ല് കൂട്ടിയിട്ടിട്ട് അങ്ങനെ കളിയ്ക്കുക പത്തു പതിനഞ്ച് കല്ല് കൂട്ടീയിട്ടിട്ട് അങ്ങനെയും കളിക്കുക അതിലാർക്കാണോ കൂടുതൽ കല്ലു കിട്ടിയത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇമ്മള് പിന്നെ ആ ആൾ ജയിച്ചു അങ്ങനെയാണ് അതാണ് കൊത്തങ്കല്ലു കളി പിന്നെ കണ്ണു കെട്ടിക്കളി പറഞ്ഞാൽ പിന്നേ കുറേ കുട്ടികൾ കൂടിയിട്ടു തന്നെയാണ് അതും കളിക്കുക എത്ര കുട്ടികളാണ് ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് അപ്പോൾ എന്താ ആ ഒരാളെ കണ്ണു കാണാത്ത രീതിക്ക് എന്തെങ്കിലും തോർത്തോ അല്ലെ എന്തെങ്കിലും തുണിയുണ്ടോ കണ്ണു ശരിക്കു കെട്ട് ആ കണ്ണു ശരിക്കു കെട്ടിയിട്ടു കാണണുണ്ടോയെന്നു നോക്കണം ഇല്ലാരപ്പം എല്ലാവരും പരിശോധിക്കും കണ്ണു കാണണുണ്ടോ കാണണുണ്ടോ എവിടെയെങ്കിലും കാണണുണ്ടോയെന്നൊക്കെ ശരിക്ക് നോക്കും അത് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ എന്താ റെഡി അറി റെഡി പറയുമ്പോൾ എല്ലാവരും വട്ടത്തിലിങ്ങനെ നിൽക്കും ഇത് ഈ കണ്ണു കെട്ടിയ ആൾ ഇമ്മളെത്തൊടണം ആ തൊട്ടാൽ ആ ആളാകും പിന്നെ എന്താ എണ്ണുക ആ ഫസ്റ്റ് തൊട്ട തൊട്ടു തൊട്ടു തൊട്ടങ്ങനെ ലാസ്റ്റ് വരുന്ന ആളാകും എണ്ണാനാകുക അപ്പോൾ ആദ്യം തൊട്ടാൾ ഒക്കെ കളീന്ന് ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് അങ്ങനങ്ങനെ പോകും അപ്പം ഈ ലാസ്റ്റ് വരുന്ന ആളാണ് പിന്നെ ഈ പിന്നെ കണ്ണു കെട്ടാനാകുക അപ്പോൾ അങ്ങനെ കണ്ണു കെട്ടിയിട്ടെല്ലാവരും മാറി മാറി മരത്തിൻ്റെ മറവിലും അവടിപ്പം വീടിൻ്റെയൊക്കെ ചുറ്റു ഭാഗത്താണ് കളിക്കുന്നേച്ചെങ്കിൽ വീടിൻ്റെ ആ ഭാഗത്തും അവിടെ ഇവിടെ ചിലപ്പം മുന്നെതന്നെ ഇരിക്കും ആ കണ്ണു കെട്ടിയാളെ ബേക്കിൽ തന്നെ നിൽക്കും പിന്നെ മുണ്ടാതെ നിക്കും ഒച്ച ഒന്നും ഉണ്ടാക്കാതെ നിൽക്കും കാരണം പിന്നെ അറിയില്ലല്ലൊ കണ്ണു കെട്ടിയതല്ലെ കാണില്ലല്ലൊ അപ്പം അങ്ങനെ അതിനനുസരിച്ചു ബാക്കിൽ നിൽക്കും ബാക്കിൽ നിന്നിട്ട് അങ്ങനെ തൊ കാണാത്ത രീതിക്ക് അങ്ങനെ നിൽക്കും അങ്ങനെയൊക്കെ നിന്നിട്ടു രസമാണ് കളി നല്ല രസമാണ് അപ്പോൾ അങ്ങനെ തൊട്ടു പിന്നെ ക പിടിക്കും ആ ആളെ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽപ്പിന്നെ ആ ആളൊഴിഞ്ഞു അങ്ങനെ ആ ലാസ്റ്റ് വരുന്നാൾ വീണ്ടും കണ്ണു കെട്ടുക അങ്ങനെയണ് കണ്ണു കെ കെട്ടിക്കളി പിന്നേ അതങ്ങനെ പിന്നെ കോഴിയും കുറുക്കനും പറഞ്ഞ കളി കോഴിയും കുറുക്കനും പറഞ്ഞാൽ കോഴിയെന്നു പറഞ്ഞാൽ പിന്നെ ഒരു ഒരു കുട്ടി ഈ പത്തു കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും കൈ വ ട്ടത്തിൽ ഇങ്ങനെ കോർത്തു കോർത്തു പിടിക്കുക എന്നിട്ടീ കോഴി കോഴിയാകാനാരാ ഞാൻ കോഴിയാകുക പറഞ്ഞേച്ചാലോല് ഞാൻ കുറുക്കനാകാ പറയ അങ്ങനെ കോഴി ആരാ ആവണേച്ചെങ്കിൽ ആ കോഴി ആകുന്നയാൾ നടുക്കു നിൽക്കുക ചുറ്റു ഭാഗം കുട്ടികളൊക്കെ പിന്നെ കൈ കോർത്തു പിടിക്കും കോർത്തു പിടിച്ചിട്ടു പിന്നെ മറ്റെ പുറത്തു നിൽക്കണെ കുറുക്കനെന്നറിഞ്ഞാൽ കുട്ടിയുണ്ടാകും കുറുക്കൻ ചോദിക്കുക പിന്നെ ഈ വീട്ടിൽ കോഴിയുണ്ടോ ചോദിക്കുക അപ്പോൾ ഈ വീട്ടിൽ കോഴിയുണ്ടോ ചോദിച്ചോണ്ടിതിൻറ്റുള്ളിൽ കൂടിങ്ങനെ കേറുക ഇതിൻറ്റുള്ളിൽക്കൂടീ അപ്പോൾ പിന്നെ ഈ വീട്ടിൽ കോഴിയുണ്ടോ ചോദിച്ചിട്ട് അപ്പം കേറുമ്പം എല്ലാവരും കൈ കോർത്തു പിടിച്ചതു കൊണ്ടാരും കയറാനായ്ക്കില്ല എല്ലാവരും കൈയ്യ് കൂട്ടിക്കൂട്ടിപ്പിടിക്കും പിന്നെ അപ്പുറത്തു കൂടെ പോന്നോ നോ നുഴഞ്ഞിങ്ങനെ കയറുക പിന്നെ എങ്ങനെങ്കിലും ഈ കോ ഈ കുറ് കോഴീനെ ഈ കുറുക്കൻ പിടിക്കണം അപ്പോളാ കളി അവസാനിക്കുക അങ്ങനെയാണ് ചെയ്യുക അപ്പം പുറത്തേക്കു വരുമ്പോൾ ഇവിടെയും കൈ കൂട്ടി പിടിക്കും ഈ വീട്ടിൽ കോഴിയുണ്ടോ ചോദിച്ച് അപ്പുറത്തേക്കു വരുമ്പോൾ അവിടെയും കൈ കൂട്ടിപ്പിടിക്കും അങ്ങനെയെല്ലാവരും കൂട്ടിക്കൂട്ടിപ്പിടിച്ചിട്ട് ലാസ്റ്റ് എങ്ങനെങ്കിലും കുറുക്കൻ കോഴീൻ്റെ അടുത്തേക്കെത്തും എത്തുമ്പോൾ പിന്നെ ഈ കോഴീനിങ്ങോട്ടു പിടിക്കും അപ്പം ആ ആ കോഴീനെ പിടിച്ചു കഴിഞ്ഞാൽ ആ കളി കഴിഞ്ഞു പിന്നെ അങ്ങനെ അടുത്ത ആൾ മാറിയിട്ട് അടുത്ത കളി അപ്പം അങ്ങനെയാണ് കോഴിയും കുറുക്കനും കളി